നമുക്ക് ഇ പി എഫ് പോർട്ടൽ വഴി നമ്മൾ മുൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഇ പി എഫ് അക്കൗണ്ട് പുതിയതായി ജോലിയിൽ ജോയിൻ ചെയ്ത സ്ഥാപനത്തിലേക്ക് മാറ്റുകയും അതിലെ സ്ഥാപനത്തിലേക്ക് മാറ്റുകയും അതിലെ ഇ പി എഫ് റെമിറ്റൻസ് തുടരുകയും ചെയ്യാവുന്നതാണ് അതിന് വെബ്സൈറ്റ് വഴി വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒ റ്റി പി സബ്മിറ്റ് ചെയ്യുകയും നമ്മുടെ ആവശ്യമായ അക്കൗണ്ട് നമ്പറും മറ്റും സമർപ്പിക്കുകയും ഇ പി എഫ് റെമിറ്റൻസ് തുടരുകയും ചെയ്യാവുന്നതാണ് അതിന് വെബ്സൈറ്റ് വഴി വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒ റ്റി പി സബ്മിറ്റ് ചെയ്യുകയും നമ്മുടെ ആവശ്യമായ അക്കൗണ്ട് നമ്പറും മറ്റും സമർപ്പിക്ക്കയും ഇതിന് വേണ്ട ഫോളോഅപ്പ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇ പി എഫിലെ പോർട്ടലിൽ ലോഗിൻ ചെയ്യുകയും പ്രക്രിയ ആരംഭിക്കുകയും ട്രാൻസ്ഫർ വിഭാഗത്തിന് നാവിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി ഇ പി എഫ് ഐ ഡി യിൽ ലോഗിൻ ചെയ്ത് പഴയതും പുതിയതുമായ തൊഴിലുടമയുടെ വിവരങ്ങളും നമ്മുടെ അക്കൗണ്ട് നമ്പറും മറ്റ് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസും നൽകി

പഴയ തൊഴിൽ സ്ഥാപനത്തിൽനിന്നും അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പുതിയ തൊഴിൽ സ്ഥാപനത്തിലേക്കാക്കി നമ്മളെ ഇ പി എഫ് റമിറ്റൻസ് തുടരുകയും ചെയ്ത് കൊണ്ട് ഇ പി എഫ് ക്രമീകരണം പൂർത്തിയാക്കാവുന്നതാണ് അതിന് വേണ്ടി അപ്പ്രൂവൽ പഴയ തൊഴിൽ സ്ഥാപനവും പുതിയ തൊഴിൽ സ്ഥാപനവും നൽകേണ്ടതും ആവശ്യമാണ് ആയതിന് വേണ്ട ക്രമീകരണങ്ങളും ചെയ്യുക അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും

ഗ്യാപ്പ് ഒഴിവാക്കുവാൻ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുക കാലതാമസം വന്നാൽ അവ തമ്മിൽ ഉള്ള ദിവസങ്ങളുടെ വ്യത്യാസം മാസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളുടെ വ്യത്യാസം ഗ്യാപ്പ് വരാനും സാധ്യതയുണ്ട് ആയതിനാൽ തൊഴിൽ സ്ഥാപനം മാറിയാൽ കഴിവതും പെട്ടെന്ന് ഇ പി എഫ് അക്കൗണ്ട് പുതിയ സ്ഥാപനത്തിലേക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഇ പി എഫ് അക്കൗണ്ട് സുഗമമായ രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കേണ്ടതാണ് ഈ പി എഫിന് മൂലം നമുക്ക് നമ്മുടെ ഒരു സുരക്ഷിതമായ സേവിങ്സ് മാർഗ്ഗമായി ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്